വിദ്യാഭ്യാസം തൊഴിൽ നേതൃത്വത്തിൽ എന്താണ് വെല്ലുവിളികൾ എന്ന് ചോദിച്ച് പറഞ്ഞാൽ ഇപ്പോൾ പി എസ് സീൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പഠിച്ച് ഒരു രണ്ടുവർഷം ഏകദേശം നമ്മൾ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും എക്സാം വന്നു എക്സാം വന്നാൽ നമ്മൾ എഴുതി ആ ലിസ്റ്റിൽ ഉണ്ട് എന്നു പറഞ്ഞാൽ ഈ നടക്കുന്നതിലാണോ ഈ ഒരു കാലഘട്ടത്തിൽ ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് പി എസ് സി ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട് നമ്മുടെ ലിസ്റ്റ് വന്നാലും നമ്മളെ ജോലിക്ക് കയറ്റാൻ ഭയങ്കര തടസ്സം ബുദ്ധിമുട്ട് അവർ ലാഗ് ചെയ്തു പോകുകയാണെന്നൊക്കെ കാണാറുണ്ട് അവർക്ക് അത്രയും എന്താണ് തൊഴിലിലാണെങ്കിലും എസ് സിക്ക് പകരം എസ് ടി എസ് ടിക്ക് പകരം ഒ ബി സിക്കാർക്ക് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിബന്ധനകളൊക്കെ അവർ ഇപ്പോഴും ഇതാക്കുന്നുണ്ട്